അത് അതേയ് ഇപ്പം എൻ്റെ വീട്ടിലേ വെ എൻ്റെ വീട് ഞാനൊന്ന് പുതുക്കി പണിഞ്ഞായിരുന്നു അപ്പം എൻ്റെ പുതിയ വീട്ട് പേര് മാറ്റാൻ വേണ്ടി അതായത് എൻ്റെ പഴയ വിലാസം മാറ്റി എൻ്റെ പുതിയ വിലാസമാക്കാനായിരുന്നു അപ്പം എൻ്റെ ലൈസൻസുമൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആ ലൈസൻസിലെ പേരെന്നു പറഞ്ഞാൽ പഴയ വീട്ടിലെ പേരാണ് അതായത് വിനു ഭവനാ അപ്പം എൻ്റെ പുത് അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനു മുൻപ് ഈ വീട്ട് പേര് മാറ്റിയിട്ട് വീട്ട് പേര് മാറ്റിയിട്ട് ലൈസൻസ് അപ്ഡേറ്റ് ചെയ്താൽ പോരെ അതാകുമ്പം എൻ്റെ പുതിയ വീട്ട് പേര് ദേവാമൃതമെന്നാണ് അപ്പം അത് ലൈസൻസിൽ വരും വിലാസമായിട്ട് ഇല്ലെങ്കിൽ പഴയ വീട്ട് പേരാണോ എന്നു വെച്ചാൽ ഞാനിപ്പം പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് അപ്പം എൻ്റെ പഴയ വീട് പത്തനംതിട്ട എൻ്റെ പുതിയ വീടെന്നു പറഞ്ഞാൽ ഇപ്പം കൊല്ലത്താണ് അപ്പം അങ്ങനെ രണ്ട് ജില്ലയിലായിട്ടാണ് അപ്പം അതു കൊണ്ട് എനിക്കിപ്പം വിലാസം മാറിയാണ് കിടക്കുന്നത് അപ്പം എനിക്കതിന്റെ ഇത് രണ്ടും അതായതീ ലൈസൻസും ഇതും കൂടൊരുമിച്ചങ്ങ് ചെയ്താലോ എന്നാണ് ഞാനാലോചിക്കുന്നത് വിലാസം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എനിക്കാ ഈ ലൈസൻസിന്റകത്തെൻ്റെ വീട്ട് പേര് പത്തംതിട്ടയിലാണ് കിടക്കുന്നത് അതാണ് ഒരിത് അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അക്ഷയയിൽ പോകണോ അതോ നമുക്ക് എം പരിവാഹനിൽ കൂടി ചെയ്യാൻ പറ്റുമോ ഈ അപ്ഡേറ്റ്